ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പല്ല് കേട് എന്തെങ്കിലും ഉണ്ടോ

ആ ഓക്കെ ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ അധികം കഴിക്കുന്ന ആളായിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ സ്വീറ്റ്സിൻ്റ സൈഡ് ആയിരിക്കും രണ്ട് നേരം ബ്രഷ് ചെയ്യാറുണ്ടോ നൈറ്റും മോർണിംഗും ആണല്ലേ മോണയ്ക്ക് നീരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നീര് ഉണ്ടല്ലേ ഓക്കെ ഹാൻഡ്സും കൂളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണോ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ട് നേരം പല്ല് തേയ്ക്കുക മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇത്രയൊക്കെ പറ്റുള്ളൂ രണ്ട് നേരം പല്ല് തേയ്ക്കുക പിന്നെ ഉപ്പിൻ്റ വെള്ളം തിളപ്പിച്ചിട്ട് വായിൽ ചൂടോട് കൂടി കൊള്ളുക ആ അപ്പം ആ എങ്ങനെ ആ ചൂടുവെള്ളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വായിൽ കൊണ്ടാൽ മതി ആ ആ ഓക്കെ എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കുറവുണ്ടോ എന്ന് നോക്കുക നിങ്ങള പേസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്യുക ആ നമ്മൾ ഇവിടുത്തെ ഒരു പേഷ് ഇല്ല അത് നമ്മൾ എന്താണ് പറയുക അത് ജസ്റ്റ് എന്താണ് പറയുക പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ മേടിച്ചിട്ടും വലിയ കാര്യം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ തന്നെ ഇവിടെ നമുക്ക് പറ്റിയ രീതിയിൽ നമ്മൾ റഫർ ചെയ്യുക നിങ്ങളെ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മാറ്റി നോക്ക് ഇപ്പം സാധാരണ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്നത് തന്നെ ചെയ്ത് നോക്കുക രണ്ട് നേരം ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞത് പോല അത് നമുക്ക് വേദന കുറഞ്ഞതിന് ശേഷം പറിക്കുന്നതിലും ബെറ്റർ നമുക്ക് അത് ഓട്ട ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് അടയ്ക്കുന്നത് അല്ലേ ബെറ്റർ നിങ്ങൾക്ക് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അതിൻ്റ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം പല്ലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി ആ ഓക്കെ ഈ ചെറുതായ പ്രായത്തിൽ തന്നെ പല്ലൊക്കെ പറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് ഭാവിയിലേക്ക് അത് വലിയ പ്രശ്നം ആവും നമുക്ക് പരമാവധി അത് അവിടെ ഇരിക്കുന്നത് ആയിരിക്കും ബെറ്റർ പിന്നെ പെയിൻ പെയിൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പെയിൻ കില്ലർ അങ്ങനെ എന്തെങ്കിലും റഫർ ചെയ്യാം നിങ്ങൾ തൽക്കാലം ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം